ഞാന് സോഷ്യല് മീഡിയയിൽ ഡാൻസ് ഷോർട്ട്സും വീഡിയോസും ഒക്കെ കാണാറുണ്ട് കാരണം ഞാന് ഞാന് എന്റെ സ്കൂള് കാലങ്ങളില് ഞാന് ഏറ്റവും കൂടുതല് ഡാന്സ് കളിക്കാറുണ്ടാ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാന് എനിക്കും ഡാന്സ് കളിക്കുന്നവരെയും ഡാന്സ് ഡാന്സ് കളിച്ചവരെയും വീഡിയോകള് കാണാന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഞാന് അത് അത് കാണുമ്പോള് എനിക്കും ഒരുപാട് പ്രചോദനം പോലെ എനിക്കും കളിക്കാനുള്ള ഒരു ആവേശം എനിക്ക് വരാറുണ്ട് പിന്നെ എന്നും പിന്നെ എനിക്ക് സോഷ്യല് മീഡിയയില് ഇഷ്ടപ്പെട്ട ഡാന്സറ് എന്നുവെച്ചാൽ മറ്റേ റംസാനാണ് റംസാന്റെ ഡാന്സ് റംസാന്റെ ഡാന്സൊക്കെ ഞാന് നല്ലവണ്ണം കാണാറുണ്ട് കാരണം എനിക്ക് നല്ല നല്ലവണ്ണം നല്ലവണ്ണം ഡാന്സ് കളിക്കുമ്പം എനിക്കും എന്തോ ഞാന് ഞാന് ഞാനാണെന്ന് പറയാന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ആണത് അത്രക്ക് എനിക്ക് മാത്രം എനിക്ക് ഇഷ്ടമാണ് റംസാനെ എനിക്ക് അത്ര മാത്രം ഇഷ്ടം ഉണ്ട് റംസാനെ നല്ല നല്ലവണ്ണം കളിക്കുന്നു അതുകൊണ്ടാണ്